ഞാൻ ആദ്യമായിട്ട് അടുക്കളയിൽ കയറുന്നത് എന്റെ അമ്മയ്ക്ക് വയ്യാതാകുമ്പോഴാണ് അടുക്കളയിൽ കയറുന്നത് അന്ന് എന്നെ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചത് യൂട്യൂബ് ആണ് ഞാൻ ഇപ്പോഴും പല സാധനങ്ങളും യൂട്യൂബ് നോക്കിയാണ് ഉണ്ടാക്കാറുള്ളത് ആദ്യമായിട്ട് ഉണ്ടാക്കി ഞാന് അടുക്കളയിൽ കയറി വെച്ചത് ചോറാണ് അത് എനിക്ക് യൂട്യൂബ് നോക്കണ്ട ആവശ്യം വന്നില്ല ഞാനത് അങ്ങനെ അമ്മ വെക്കുന്നത് കണ്ടിട്ട് ഉണ്ടാക്കി ഞാന് പിന്നെ പിന്നെ എനിക്ക് ഈ യൂട്യൂബില് വെറുതെ നോക്കി ഇരുന്നപ്പോൾ എനിക്ക് ഈ ഒരു പ്ലാവില കുമ്പിള് കുത്തിയിട്ട് അതില് ഒര് അപ്പം ഇണ്ടാക്കുന്നത് ഞാൻ കണ്ടു അത് അങ്ങനെ എനിക്കൊരു ഇൻസ്പ്പ്രെക്ഷനായി ഞാന് ഉണ്ടാക്കാൻ തുടങ്ങി അപ്പം ഉണ്ടാക്കാൻ തുടങ്ങി എന്താ അതിനു വേണ്ടിയിട്ട് ഞാനാദ്യമായിട്ട് ഞാന് ഇവിടെ അടുത്തുള്ള ചേട്ടന്റെ കടയിൽ പോയിട്ട് ഞാന് എന്താ പറയുക അരിപ്പൊടി ശർക്കരയും വാങ്ങിക്കൊണ്ടുവന്നു എന്നിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് ശർക്കര നന്നായിട്ട് കുത്തിപൊടിച്ച് എന്താ പറയുക അത് ഉരുക്കി അതിലേക്ക് നാളികേരം ചിരകിയത് ചേർത്ത് അത് മിക്സ് ആക്കിയൊരു അതൊക്കെ ചേർത്ത് ഒര് നല്ലൊരു കുമ്പിളപ്പം ഉണ്ടാക്കി ഞാന് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഒര് അപ്പം ഉണ്ടാക്കുന്നത് പിന്നെ അങ്ങനെ ഓരോ ഓരോ ദിവസവും ഞാൻ യൂട്യൂബ് നോക്കുമ്പോഴും അതേപോലെ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോഴും എനിക്ക് ഓരോ വിഭവങ്ങള് ഇങ്ങനെ കിട്ടാൻ തുടങ്ങി ഞാന് അതൊക്കെ നോക്കിയിട്ട് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി തുടങ്ങി പിന്നെ എനിക്ക് ഞാൻ ഉണ്ടാക്കിയതിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ഈ പറഞ്ഞ ഒരു കുമ്പിളപ്പം ആയിരുന്നു അത് ഞാന് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വീടിന്റെ അടുത്തുള്ള ചേച്ചിമാർക്കും അനിയന്മാർക്കും ഏട്ടന്മാർക്കും ഒക്കെ ഞാൻ കഴിക്കാൻ കൊടുത്തു അപ്പോൾ അവരെല്ലാവരും അത് കഴിച്ചിട്ട് വളരെ ഹാപ്പിയായിട്ട് എന്നോട് പറഞ്ഞു ആ നല്ല രസമുണ്ട് നിനക്ക് ഇതിലൊരു കരിയർ ഞാൻ കാണുന്നുണ്ട് എന്ന് അവര് പറഞ്ഞു എന്നോട് അതുപോലെ അങ്ങനെയാണ് എനിക്കിത് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ ഒരിത് തന്നത് ഞാൻ പല സാധനങ്ങളും ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിട്ടും ഞാൻ ഓരോ റെസിപ്പികൾ നോക്കിയിട്ട് ഉണ്ടാക്കാറുണ്ട് ഉണ്ടാക്കിയതൊക്കെ ഇതുവരെ പാളിപോയിട്ടൊന്നുമില്ല രസമുണ്ട് പിന്നെ ഞാൻ അടുക്കളയില് ഇപ്പം ഞാൻ അടുക്കളയില് കൂ കൂടുതലായിട്ട് കുക്ക് ചെയ്യാറുണ്ട് പിന്നേം ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാരൊക്കെ ഉണ്ട്